ഞാൻ എടുത്ത ചിത്രത്തിൽ എനിക്ക് ഏറ്റോം കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് ഞാൻ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രഫിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇവിടെയല്ല നമ്മുടെ ഗോവ ഭാഗത്തേക്ക് അവടെപ്പോയിട്ട് ഒരു ഫോട്ടോഗ്രാഫി എടുക്കുന്ന ടൈമിലവിടൊരു ചെണ്ടകൊട്ട് ടീംസ്സൊണ്ടായിരുന്നു അപ്പോൾ അവരുടെതായ രീതിയിൽ അവർ നിന്ന് പെണ്ണിന് ചെക്കനും ചെണ്ട കൊടുത്ത് അത് ഞങ്ങൾ ഒരു വെറൈറ്റി രീതിയിൽ വീഡ്യോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു അടിപൊളി രീതിയിൽ ഫിലിം രൂപത്തിലാക്കി നമ്മൾ അത് വീഡ്യോയും ഫോട്ടോയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഏറ്റോം കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടയാണ് കാരണവെന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെണ്ടയായിട്ടൊന്നുവെല്ലാ കല്യാണത്തിനും നമുക്ക് അങ്ങനെ കിട്ടത്തില്ല നമുക്ക് അതൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാന് പറ്റിയൊരു കാര്യമായിരുന്നു ചെണ്ട ചെക്കൻ ചെണ്ട കൊട്ടുന്നു പെണ്ണ് താളം പിടിക്കുന്നു അങ്ങനൊരു ഒരു തീമിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവർ നല്ല ഫോട്ടോയായിരുന്നു അത്യാവശ്യം വ്യൂസൊക്കെ കയറിയ ഫോട്ടയാണ് അങ്ങനെ അതാ ഫോട്ടോ അവർക്ക് കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടുകയും അത് അവർ നല്ല രീതിക്ക് ഞങ്ങളോട് പറയുക ഒക്കെ ചെയ്തായിരുന്നു